ചേച്ചി ഒരു മിനിറ്റ് അവിടെ നിൽക്കുമോ ചേച്ചി ഞങ്ങൾ ഈ ചങ്ങാതിമാരുമായിട്ട് കറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ ഈ സ്ഥലത്ത് അധികമായിട്ട് അറിയില്ല നമ്മൾക്ക് കുറച്ച് നല്ല ഒരു സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ളതെല്ലാം പറഞ്ഞു തരുമോ ബീച്ച് കടൽ ബീച്ചിലൊക്കെ ആ അവിടെ കുറെ ദൂരം ഉണ്ടോ പോകുവാൻ ആ ഓട്ടോനു എങ്ങാനും പോകണോ

പിന്നെ നല്ല ഫുഡ് ഒക്കെ കിട്ടുന്ന സ്ഥലം

ആ ആ പിന്നെ വേറെ സ്ഥലങ്ങൾ ഒന്നുമില്ലേ

ആ അത് കുറെ ദൂരം ഉണ്ട് ആ പിന്നെ വേറെ നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നറിയുമോ

വേറെ ഇത് വേറെ സ്ഥലങ്ങൾ നമ്മൾ കുറച്ച് ദൂരെ നിന്ന് വരുന്നതാണ് ഈ സ്ഥലം പറ്റിയിട്ട് കറക്ടായിട്ട് അറിയാത്തതുകൊണ്ടാണ് ചേച്ചീനോട് ചോദിച്ചത് ആ

ആ താങ്ക്സ് ഏച്ചി ആ അതെ